ടീവിയില് വാർത്താ ചർച്ചകള് കണ്ടിട്ടുണ്ട് അവയുടെ അഭിപ്രായം ചില സമയത്ത് തന്നെ അത് പ്രതീക്ഷിച്ച പോലെ അതിൻ്റെ ഗുണം ലഭിക്കാറില്ല ആളുകളെ കൊണ്ടിരുത്തുമ്പോൾ അവരുടെ അഭിപ്രായങ്ങള് മുഴുവന് പറയാൻ സമയം കിട്ടാറില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ വാർത്തയുടെ മുഴുവൻ പ്രാധാന്യവും ജനങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കാറില്ല വാർത്താ അവതാരകരില് എനിക്ക് ന്യൂസ് ട്വന്റി ഫോറിലെ എസ് കെ ശ്രീകണ്ഠൻ നായരുടെ അവതരണം അടി നല്ലൊരു അവതരണം ആണ് ജനങ്ങൾ നമ്മള് ഇരുന്നു പോകുന്ന ഒരു അനുഭവമാണ് ആ വാർത്ത കാണുമ്പോൾ ഒരു ന്യൂസ് കാണുന്നതിലുപരി ഒരു എന്റർടൈൻമെന്റും അതുപോലെ തന്നെ അറിവും നമുക്ക് ഒപ്പം ലഭിക്കുന്നുമുണ്ട്